നമ്മുടെ വ്യാപാരത്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വാണിജ്യത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മുടെ പ്രാദേശിക മായിട്ടുള്ള നമ്മുടെ മലയാള ഭാഷയ്ക്ക് വളരെ അധികം പ്രാധാന്യമാണ് ഉള്ളത് കാരണം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ഏതൊരു പൗരനും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും നമ്മുടെ മാതൃഭാഷയിലാണ് സംസാരിക്കുന്നത് മാതൃഭാഷയിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടേൽ നമ്മുടെ മാതൃഭാഷയാണ് അപ്പോൾ അത് പ്രാദേശികമായിട്ട് നമമുക്കൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ മറ്റുള്ള ഭാഷയെ കാട്ടും കൂടുതൽ ആശ്രയിക്കുന്ന നമ്മുടെ പ്രാദേശിക ഭാഷ ആയിരിക്കും അതിലൂടെ നമ്മൾ ആശയ വിനിമയം നടത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രാദേശിക ഭാഷയിലൂടെ പറയുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഒരു വാണിജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് പരമായിട്ടുള്ള എന്തൊരു കാര്യത്തിന് നമ്മൾ പ്രാദേശിക ഭാഷയിലൂടെ ഇടപെടുമ്പോൾ മാത്രമേ അത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു അപ്പം എല്ലാ ആളുകളിലേക്കും എത്തണമെങ്കിൽ നമ്മൾ ഒരു എന്താണ് പറയുക നമ്മുടെ ഒരു ആശയം എല്ലാ ആളുകളും സ്വീകരിക്കുന്നതിനും എത്തേണ്ടതിനും നമ്മൾ ആശയ വിനിമയം നടത്തുമ്പോൾ അത് കറക്റ്റായിട്ട് അവരിലേക്ക് ആശയം എത്തിക്കുന്നതിന് നമ്മുടെ പ്രാദേശിക ഭാഷയ്ക്ക് വളരെ അധികം പ്രാധാന്യം ആണ് ഉള്ളത് അപ്പോൾ പ്രാദേശിക ഭാഷ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അടിസ്ഥാന പരമായിട്ട് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ആ ഭാഷയിലൂടെ ആശയ വിനിമയം നടത്താനാണ് അപ്പോൾ ആ ഒരു ഭാഷയിലൂടെയാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം ഒക്കെ നടത്തുന്നതെങ്കിൽ അത് കൂടുതൽ മെച്ചമോ ഉണ്ടാവും ആളുകൾ തേടിയെത്തുന്നത് അങ്ങനെ ആശയ വിനിമയം നടത്തുന്നവരിലേക്കായിരിക്കും അപ്പം ഏറ്റവും കൂടുതൽ സാധാരണക്കാര് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വ്യാപാരം തുടങ്ങുന്ന ആൾക്കാർ സംസാരിക്കേണ്ടത് അതിൻ്റെ പ്രാദേശിക ഭാഷയിലൂടെയാണ് അപ്പം മാത്രമേ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ